ആ ഹലോ

ചായ കോഫിയാണോ ചായയാണോ വേണ്ടത് സ്ട്രോംഗ് ചായ ഏലയക്ക ചായ ആ കഴിക്കാനൊത്തിരി കഴിക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ട് പരിപ്പുവട ഉഴുന്നുവട പക്ക അതൊക്കെ ഉണ്ട് പിന്നെ കട്ലേറ്റ് മീറ്റ്റോള് ഒത്തിരി സാധനങ്ങളുണ്ട് ഏതാണ് വേണ്ടത് മസാലദോശ ഇല്ല

ആ പൊറോട്ടയും പിന്നെ ബീഫ് ഫ്രൈയ്യുണ്ട് അത് പാഴ്സലാണോ അതോ ഇരുന്ന് കഴിക്കാനാണോ ആ ആ ആ എത്ര സ്ട്രോംഗ് ചായയാണ് വേണ്ടത് അഞ്ച് സ്ട്രോംഗ് ഏലയ്ക്ക ചായ അല്ലേ ആ ആ എത്ര സമയത്തിനുള്ളിൽ വരും ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ അപ്പോഴത്തേക്കെല്ലാം റെഡിയാക്കി വച്ചേക്കാം ഓക്കെ ഓക്കെ ആ ആ എന്നാൽ എന്നാൽ വച്ചേക്കട്ടേ ഓക്കെ താങ്ക് യൂ ആ